തീർച്ചയായും കേരളം നല്ല നല്ല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും പിന്നെ അതിൻ്റെ ഗവേഷണത്തിലും വികസനത്തിലും മുന്നോ മുന്നോട്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ നല്ല നല്ല ചുവടുകൾ വച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ ഓരോ ഒരു ക്ലിനിക് എങ്കിലും എന്നുള്ള രീതിയില് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ക്ലിനിക്കിൽ പരീക്ഷണം ഈ നാട്ടുമ്പുറത്തൊക്കെ ക്ലിനിക് ആണ് ഒരു ഗവൺമെൻറ് ക്ലിനിക്കോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു ക്ലിനിക്ക് നിർബന്ധമാണ് കാരണം ഒത്തിരി ദൂരെ നഗരങ്ങളിലേക്ക് അവർക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ അവർ എമർജൻസി ആയി ഓ പി ടിക്കറ്റ് എടുത്ത് ക്ലിനിക്കിൽ എങ്കിലും പോയി ചികിത്സ സഹായം തേടാവുന്നതാണ് അപ്പം പൊതുജനങ്ങളുടെ ആരോഗ്യം മുന്നിൽ കണ്ടിട്ടാണ് ഗവൺമെൻറ് അങ്ങനത്തെ നടപടികൾ ഒക്കെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പുറത്ത് ഒരു ചികിത്സയ്ക്ക് പോവാതെ തന്നെ നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ നല്ല നല്ല ഫെസിലിറ്റികളും നല്ല നല്ല ചികിത്സ കേന്ദ്രങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ